ഹലോ ഹലോ അതെ നമുക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു അയ്യായിരമാളുടെ പരിപാടിയായിരുന്നു അപ്പോള് നമ്മള് പാലപ്പുറത്ത് തന്നെ അരിയൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ അവിടെ ഏതൊക്കെ ഐറ്റംസ് റൈസാണുള്ളത് അവിടെ ഏതൊക്കെ ഐറ്റംസ് റൈസാണുള്ളത് ഓക്കെ ബസുമതി റൈസ് ഉണ്ടോ എത്രയാണ് റൈസ് എത്രയാണ് ഓക്കെ പിന്നെ ജീരകശാലയോ ജീരകശാലയുണ്ടോ ജീരകശാല റൈസുണ്ടോ അതിന്റെ റേറ്റ് എങ്ങനെയാണ് ആ ഓക്കെ ഓക്കെ ഞാന് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് ഡെലിവറി ഉണ്ടാകുമല്ലോ അല്ലേ ഉണ്ടോ ഓക്കേ ആ ഓക്കെ കുറവ എന്താണ് വില

അപ്പോള് ഞാന് ഞങ്ങളുടെ ലൊക്കേഷൻ അയച്ചുതന്നാല് നിങ്ങളങ്ങോട്ട് സാധനം എത്തിക്കുമോ ഓക്കെ ഓക്കെ ആ അരി അവിടെനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മളിപ്പോഴൊരു വെറൈറ്റി മലപ്പുറത്തുനിന്ന് ഇറക്കാമെന്ന് വിചാരിച്ചു ഒന്ന് റേറ്റൊക്കെ നോക്കിയിട്ട് ഓക്കെയാണെങ്കില് ഞാന് അറിയിക്കാം കേട്ടോ ആ ഓക്കെ ഞാന് അഡ്രസ്സ് അയക്കാം നിങ്ങളതിലേക്ക് ഡെലിവറി ആക്കിത്തരില്ലേ ഡെലിവറി ആക്കില്ലേ ആ ഓക്കെ താങ്ക് യൂ ശരി ആ ഓക്കെ ഓക്കെ